ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ അതെ അതെ ആരായിരുന്നു ഉം ഇവിടെ ആ ഇവിടെ രാവിലെ ഈവനിംഗ് അഞ്ച് മണി വരെ ആ ഉം ഉം അതെ ഇന്ന് അതുങ്ങൾക്ക് വെള്ളം കൊടുക്കണം തീറ്റ കൊടുക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ വിളിക്കണം ചികിത്സിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു അങ്ങനെയുള്ള ജോലികളെക്കെയാണ് എന്താണ് നിങ്ങൾക്ക് വരാന് താല്പ്പര്യം ഉണ്ടോ ആ എന്നാൽ അപ്പം ഇത്രയൊക്കെ ജോലികളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഉം ആ എല്ലാവരും പ്രശ്നക്കാരൊന്നുമല്ല ഒത്തിരി അവരൊക്കെ കൂട്ടിൽ അല്ലേ കിടക്കുന്നത് പിന്നെ നമ്മളെ കാണുമ്പോൾ ഒരു ദേഷ്യവും കൊടുത്തില്ലെങ്കിൽ ദേഷ്യയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഉം ഉം ഉം നിങ്ങൾ കാണാന് വരാനാണോ ഉം ഇവിടെ ബുക്കിങ്ങ് ഉണ്ട് ബുക്ക് ചെയ്യണം

ഉം ടിക്കറ്റ് ബുക്ക് ചെയ്യണോ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എത്ര എണ്ണം ഇവിടെ കാണാനുള്ള മൃഗങ്ങൾ എല്ലാം ഉണ്ട് ആന പുലി സിംഹം കടുവ മുയൽ മാൻ ഉം അങ്ങനെ എല്ലാ തരം മൃഗങ്ങളും ഉണ്ട് ഉം ഉം എല്ലാം മറ്റെ മറ്റെ അയിനും ആണും പെണ്ണും രണ്ടും വച്ചു കൊണ്ട് ഉം അതുങ്ങളൊക്കെ പ്രത്യേക രീതി മയിൽ എല്ലാം സംഭവം ഉണ്ട് ഉം ഉം ഉം നിങ്ങൾക്ക് എന്ന് വരാനാണ് നിങ്ങളെ ആ ഉം ആ ആയിക്കോട്ടെ ഉം ഉം ആ ഏട്ടായി ഞാനും ഒരു ദിവസം രാവിലെ പിന്ന തലേദിവസം ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു സിംഹം നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിന്ന ആളായിരുന്നു രാവിലെ വന്നു നോക്കിയപ്പോഴത്തേക്ക് അതിന് ഒരു ക്ഷീണവും ഒക്കെ വൈകിട്ട് കൊടുത്ത ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഒരു മേലായിക കാണിച്ചു അപ്പം അന്നേരം ചെന്നു ഞാന് നോക്കിയപ്പം അതിന് എന്തോ ഒരു അവശതയായിട്ട് തോന്നി അപ്പം പിന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറ് വന്നു നോക്കി അതിന് ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്തു ഇപ്പം അതിന് കുഴപ്പം ഒന്നുമില്ല ഉം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉം ഉം ആ ആ ഇല്ല ഇല്ല ഉപദ്രവിക്കുക ഒന്നും ഇല്ല ഉം ഉം അവര്ക്കും നമ്മളോട് സ്നേഹമാണ് നമ്മൾ സ്നേഹിക്കുമ്പം അവരും സ്നേഹിക്കും ഉം കുഴപ്പം ഇല്ല ഉം ഉം ആ ആ എത്ര എണ്ണമാണ് ബുക്ക് ചെയ്യേണ്ടത് എത്ര ടിക്കറ്റാണ് ആറ് എണ്ണം ആ ആ എന്നാൽ ഓക്കെ ചെയ്തേക്കാം ഉം